ഞാന് സാധാരണയായി യൂറ്റൂബ് പാചക വീഡിയോകളാണ് ഇത്തരം പാചക പരീഷണങ്ങള്ക്കായി ഉപയോഗിക്കുന്നത് അതാണ് കൂടുതൽ സൗകര്യപ്രദം കാരണം നമുക്ക് കണ്ട് മനസ്സിലാക്കി ഓരോ പടികളും ആ രീതിയില് ചെയ്യാന് സാധിക്കും അതിനാല് തന്നെ യൂറ്റൂബ് വീഡിയോകൾ ഞാനതിനായി വളരെയധികം പ്രയോജനപ്പെടുത്താറുണ്ട് ആദ്യമായി ഒരു ഇത് വസ്തു പാചകം ചെയ്യുമ്പോള് വളരെ ടെന്ഷന് നിറഞ്ഞതും ആ വീഡിയോയില് കാണുന്ന തരത്തില്ത്തന്നെ അതിന്റെ റിസള്ട്ട് ലഭിക്കുമോ എന്നുള്ളൊരു ടെന്ഷനും എപ്പഴും കാണും അളവുകളെല്ലാം വീഡിയോയില് പറയുന്നതുപോലെ തന്നെ സൂക്ഷിച്ചും കൃത്യമായും ഇടാന് വളരേ ശ്രദ്ധിക്കും എന്നാലും മനസ്സിലെപ്പോഴും ഒര് ഇതിനേക്കുറിച്ചൊരു ടെന്ഷനുണ്ടായിരിക്കും അതില് കാണുന്ന പോലെ തന്നെ നാന്നായി വരുമോ എന്നുള്ളൊരു ടെന്ഷനുണ്ടാകും അത് മറ്റുള്ളവര്ക്ക് കൊടുക്കുമ്പോള് അവരുടെ അഭിപ്രായം കേള്ക്കാനും ഞാന് വളരെ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് പുതിയ പുതിയ കാര്യങ്ങളിങ്ങനെ പരീക്ഷിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒര് കാര്യമാണ്